ഞാനെന്തായാലും അമ്പൂരിക്കാണ് ഞാനമ്പൂരിക്കാണ് പോകണത് പെന്നെ അപ്പം ഞാനപ്പയി ബസ്സിൽ കയറീലെ ഇനിയിപ്പം എന്താ ചെയ്യാൻ അപ്പോൾ വാട്ടർത്ത്ക്ക് എത്രയ ചാർജാകാ പത്തോ അപ്പോൾ ഇഷിനി നെലമ്പൂരിക്കിള്ള ബസ്സെപ്പളാ കിട്ടുക

നിങ്ങൾക്കാദ്യം തന്നെ പറഞ്ഞാൽ മതീനു ഇത് നേരിട്ട് നിലമ്പൂരിക്ക് പോവില്ലാന്നുള്ളത് ആണോ അപ്പോൾ വാട്ടർ സിമിന്നിപ്പോൾ നിലമ്പൂർ ബസ്സ് വരണെങ്കിൽ എത്ര സമയം പിടിക്കും ആവലെ ഉണ്ടാകുവോ ആ ഞാൻ ഒറ്റയ്ക്കല്ല അതാണ് എനിക്കറിയില്ല ആ ന്നെയ്പോട്ട് ആ അതും നേരെപ്പോലെ തന്നെ നമ്മൾ സൈറോട്ടിലന്നെയാ ബസ്സ് വരുന്നത് പിന്നെ നേരിട്ടുള്ള ബസ്സെയ്ക്കാല്ലെ നിലമ്പൂർക്ക് ആ ശരി ന്ന ഞാൻ മടർത്ത് ഇറങ്ങിയിട്ട് മാറി കയറേണ്ടി വരും അല്ലാ പ്പ എന്ത ചെയ്യുക എന്നാൽ ഓക്കെ ശരി